ഹലോ ഞാൻ ഈ എൻ്റെ പേര് ശ്രീരാജ് ഞാൻ വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ എനിക്കൊരു പ്രോബ്ലം ഉണ്ട് അതായത് എൻ്റെ വിലാസൻ വിലാസവും ലൈസൻസിൻ്റെ പേര് മാറ്റണം നിങ്ങൾക്കും ഇതേ അവസ്ഥയാണ് നിങ്ങളിത് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ കേട്ടിട്ടാണ് ഞാന് വിളിക്കുന്നത് നിങ്ങൾക്ക് എന്നെ നിങ്ങളെന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഇതിനാവശ്യമുള്ള സാധനങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല ഇതെങ്ങനെ ചെയ്യേണ്ടത് എന്നൊന്ന് എനിക്കൊന്ന് പറഞ്ഞ് തരണം വീട്ട് പേര് മാറി എനിക്ക് ലൈസൻസുണ്ട് എനിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞു ഞാൻ ലൈസൻസ് എടുത്തിട്ടുണ്ട് അപ്പം ലൈസൻസിൻ്റെ ലൈസൻസ് പുതുക്കണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പറഞ്ഞ് തരണം അക്ഷയിൽ പോകണോ അതോ ഇല്ലെങ്കിൽ നമ്മള് പഞ്ചായത്തിൽ പോകണോ എന്നൊക്കെ ഒന്നു പറഞ്ഞ് തരണം പിന്നെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് എന്തൊക്കെ പേപ്പേഴ്സ് എന്തൊക്കെയാണ് എടുക്കേണ്ടത് ആധാർ കാർഡ് അങ്ങനത്തെ ഒക്കെ എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് പറയുക പോയി തിരിച്ച് വരണ്ട കുറച്ച് ടൈമെടുക്കുന്ന പരിപാടിയാണ് പിന്നെ പൈസേൻറ്റത് എങ്ങനെയാണ് പൈസ വേണോ എന്നൊക്കെയൊന്ന് പറഞ്ഞുതരിക